ഇത്രയും നാളും തുന്നാൻ ബുദ്ധിമുട്ടു തോന്നിയ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വസ്ത്രമെന്നു പറയുന്നത് ബ്ലൗസാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചുരിദാറും അതുമിതുമൊക്കെ തയ്ച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടു തോന്നിയതും തയ്ക്കാൻ മറന്നുപോവുന്നതും അതിൻ്റെ അളവുകള് മറന്നുപോകുന്നതും അതിൻ്റെ സ്റ്റിച്ചിങ് ഭംഗി പോകുന്നതും എല്ലാം ബ്ലൗസാണ് ആ ഒരു ബ്ലൗസെന്നു പറയുമ്പോള് നമ്മള് തുടക്കക്കാരാണെങ്കില് നമുക്ക് ഒരു ദിവസം ഫുള് വേണ്ടി വരും നല്ല പോലെയൊന്ന് ചെയ്തെടുക്കാൻ ആദ്യം അതിന്റെ കട്ടിങ്ങാണു പഠിക്കേണ്ടത് താല്പര്യം ഉള്ളവർക്കാണെങ്കിൽ അതു കുറേ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും താല്പര്യം ഇല്ലാത്തവര് സ്റ്റിച്ചിങ് പഠിക്കാൻ പോയാല് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചുരിദാറും ഒക്കെ സിമ്പിളായിട്ടുള്ള രീതിയില് നമുക്കു തയ്ക്കാം പിന്നെ ഫ്രില്ലൊക്കെ വച്ച് ചുരിദാറുകളും തയ്ക്കാൻ പാടാണ് പോളിസ്റ്റർ പോലത്തെ ഒഴുക്കൻ മറ്റിലുള്ള തുണികള് ഇങ്ങിനെ അങ്ങനത്തെ തുണികളൊക്കെ ബുദ്ധിമുട്ടാണ് തയ്ക്കാന് ബ്ലൗസിൻ്റെ തുണി ചില മെറ്റീരിയലൊക്കെ ഭയങ്കര സൂചിയൊക്കെ കയറുമ്പോള്ത്തന്നെ സൂചി ഒടിഞ്ഞു പോകുന്ന സൈസ് മെറ്റീരിയലാണ് അതു പിടിച്ചാല് നില്ക്കത്തില്ല നമ്മള് പറയുന്ന രീതിക്കു നില്ക്കുകയില്ല അത് ഷെയ്പ്പിലിരിക്കുകയില്ല തയ്ച്ചു കഴിയുമ്പോള് പൊങ്ങിയും പൊളിച്ചും ഇരുന്നാല് വാങ്ങിക്കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിനത് ഇഷ്ടപ്പെടത്തില്ല നമ്മള് സ്വന്തമായിട്ട് തയ്ച്ചാല്പ്പോലും നല്ല പോലെ ഇരിക്കണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അവ പറ്റുന്നുണ്ട് പക്ഷേ നമുക്കതു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടു തോന്നുന്നു രണ്ടു ദിവസമൊക്കെ ഒരു ബ്ലൗസിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടി വരുന്നു ഫുൾ ടൈം ഇരിക്കുകയാണെങ്കില് തീരും പക്ഷെ ഇരുന്നാല് നമ്മള് മടുക്കും നമ്മള്ക്ക് അലസതയും മടിയും വിഷമവും സങ്കടവും ഒക്കെ വരും ത്രയും സമയം ഒരു ബ്ലൗസിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയില്ല ഒരു ദിവസം രണ്ടും മൂന്നും മണിക്കൂര് ഇരുന്നു അതുകഴിഞ്ഞാല് പിറ്റേ ദിവസമേ തോന്നുകയുള്ളൂ അങ്ങനെയാണ് ബ്ലൗസ് സ്റ്റിച്ചിങ്ങ് ടക്കിടണം കഴുത്തു വെട്ടണം അതു കഴിഞ്ഞതില് ക്രോസ് പീസ് കട്ടെയ്തു കൂട്ടി പിടിപ്പിച്ചിട്ടത് ആ കഴുത്തില് പിടിപ്പിക്കണം അപ്പോള് കുറേ സമയം പോക്ക് അതു കഴിഞ്ഞതിന്റെ കൈത്തയ്യലെന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട് അതാണ് നൂലു പോലെ കാണത്തില്ലാത്ത രീതിയില് നല്ല നല്ല ഫിനിഷിങ്ങില് തയ്ക്കണം അല്ലാതെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല കാണുന്നവര് വേണ്ടാ എനിക്കു വേറെ പണിയില്ലേ എന്നുള്ള രീതിയില് ചോദിക്കുകയും പൈസ തരാതിരിക്കാനും ചാൻസെന്നു ഞങ്ങള് വേറെ വല്ലയിടത്തും തയ്പ്പിച്ചോളാം നിങ്ങള്ക്കു വേറെ പണിയൊന്നും ഇല്ലേ എന്നും ചോദിക്കേണ്ട അവസ്ഥ വരും അതൊന്നും അല്ലാതെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ചുരിദാര് മാത്രവും റിസ്കേറ്റെടുത്തു കഴിഞ്ഞാല് നമ്മളവർക്കു തുണിയുടെ പൈസയും കൊടുക്കേണ്ടി വരും അവര് വേറെ സ്റ്റിച്ചിങ് കൂലി വേണമെന്നു പറഞ്ഞാൽ അതങ്ങനെയും കൂടെ കഷ്ടമായിരിക്കും അതുകൊണ്ട് ബ്ലൗസാണെനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റിച്ചിങ് പരിപാടിയായിട്ടു തോന്നുന്നത് പാന്റൊക്കെ പിന്നെ സിമ്പിളായിട്ടുള്ള തയ്ച്ചാലെളുപ്പമാണ് പക്ഷെ ബ്ലൗസ് പറ്റത്തില്ല